നമ്മുടെ പ്രദേശം ഞങ്ങളുടെ പ്രദേശത്ത് ഇന്നത്തെ സാഹചര്യം വിദ്യാഭ്യാസം ഉണ്ട് പഷേ അവർക്ക് തൊഴിൽ ചെയ്യാൻ ഉള്ള സ്ഥാപനങ്ങളോ സന്ദർഭങ്ങളോ ഇല്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയാണ് എല്ലാവരും ജോലി ചെയ്തതും പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതൊക്കെ ഒര് വെല്ലുവിളികളാണ് ചിലർക്ക് പഠിക്കാൻ പറ്റിയാലും ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ജോലി ചെയ്യുന്നോർക്ക് പഠിക്കുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട സ്ഥാപങ്ങളിലൊക്കെ ജോലി ചെയ്ത് ചെറിയ ചെറിയ ശമ്പളങ്ങളിലാണ് ഇന്നത്തെക്കാലത്ത് ഏറ്റവും വലിയ യുവാക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ തൊഴിലില്ലായ്മ കാരണം എല്ലാം പഠിച്ച് നഴ്സിങ്ങൊക്കെ പഠിച്ചിട്ട് ഇന്ന് നമ്മളെ നാട്ടിൽ ജോലി ചെയ്യാതെ മറ്റുള്ള രാജ്യങ്ങളിലും ദേശങ്ങളിലൊക്കെ പോയിട്ടാണ് എല്ലാവരും ഇപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധിമുട്ട് അപ്പനും അമ്മയിൽ നിന്ന് അകലുന്ന ബുദ്ധിമുട്ട് അങ്ങനെ ഒക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ ലൈഫിലുണ്ടാവുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികൾ ഒക്കെയുണ്ട് ഇപ്പം ഒരു അപ്പച്ചനും അമ്മച്ചിയും മാത്രം ആയിട്ട് മകനൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവൻ പുറത്തോട്ടൊക്കെ പോയിട്ട് ചാച്ചനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ആയിരിക്കും അവൻ ജോലി ചെയ്യുന്നിടത്ത് കാരണം നമ്മൾ വേറൊരു നാട്ടിൽ പോയി കിടക്കുമ്പം ചിലപ്പം ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും ടിക്കറ്റിന് പൈസ കൂടുതലായേക്കും ചിലപ്പോൾ പൈസ കുറവായേക്കും അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പത്തേക്കും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ എത്തിപ്പെടാനോ അങ്ങനെ ഒക്കെ ഉള്ള ഒത്തിരി വെല്ലുവിളികളുണ്ട് നടക്കുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ അതുകൊണ്ട് കൂടുതലും ആൾക്കാർ പുറത്തോട്ട് പോകാനായിട്ട് ജോലി ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിലും പോകാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അപ്പോൾ പറയും എൻ്റെ അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അച്ഛന് വയ്യ അമ്മയ്ക്ക് വയ്യയെന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തൊഴിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും ചെറിയ ജോലികളിലേക്ക് ഇപ്പോൾ ഏലക്കാട്ടിൽ പണിക്ക് പോവാൻ ഒരു തേയില തോട്ടത്തിൽ പണിക്ക് പോവാനോ അങ്ങനെ ഒക്കെ ആയിരിക്കും അവരുടെ വിധിയായിട്ട് അവർ നടത്തുന്നത് അപ്പം അവർക്ക് കൂടുതലും താൽപ്പര്യം പുറത്തോട്ട് പോവാനും പൈസ ഒക്കെ സമ്പാധിക്കാനും ഒക്കെയാണ് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി വെല്ലുവിളികളാണ് ഇന്ന് ഇന്നത്തെ യുവജനങ്ങളിൽ നേരിട്ട് വരുന്നത് അപ്പോൾ തൊഴിൽ സ്ഥാപനങ്ങൾ കുറവും തൊഴിലാളികൾ കൂടുതലുമായ ഒരു ലോകം ആണ് ഇന്നത്തെക്കാലത്ത് നമുക്ക് ഇവിടെ നേരിട്ടു കൊണ്ടിരിക്കുന്നത്